പ പണ്ടത്തെ ഫോണുകൾ ഇന്ന് വളരെ പ്രയാസകരമാണ് ഇപ്പോൽ ആധുനിക ടെക്നോളജികൾ വന്നപ്പോൾ വളരെ എളുപ്പമാണ് വിദേശത്ത് നിൽക്കുന്നവരെ നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു അവിടെ ലൈവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സംസാരിക്കാൻ പറ്റും നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കുന്നതുപോലെ ആളെ കാണാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്ന് പഴയത് സ്വരം മാത്രമേ കേൾക്കുള്ളായിരുന്നു നമ്പറിൽ കുത്തി വിളിച്ചാൽ തന്നെ ഒട്ടും ഒത്തിരി പൈസയും ചിലവാകുമായിരുന്നു അത് ചിലപ്പം കിട്ടിയാൽ കിട്ടി കിട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ജി ബി ഒന്നും പണ്ടില്ലല്ലോ ഇന്നത് കഴിഞ്ഞ് ഇപ്പം ഫൈവ് ജി വരെയായി എല്ലാം സ്പീഡിൽ വളരെ പെട്ടെന്ന് പണ്ട് ഒത്തിരി നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് ട്രങ്ക് ബുക്ക് ചെയ്തൊക്കെ വിളിക്കാനായിട്ട് ഇപ്പം അതെല്ലാം മാറി ഇപ്പം ആ ആധുനിക സജ്ജീകരണം വന്നപ്പോൾ ടെക്നോളജി വികസിച്ചപ്പോൾ ഫോർ ജി ഇപ്പം ഫൈവ് ജി ആയി ടു ജി വൺ ജി ടു ജി ആയി ത്രീ ജി ആയി ഫോർ ജി ആയി ഇപ്പോൾ ഫൈവ് ജി ആയി അപ്പോൾ നമ്മുടെ ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ആയ സ്ഥിതിക്ക് ഏത് രാജ്യം ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് ആരെ വേണമെങ്കിലും നമുക്ക് എപ്പോൽ വേണമെങ്കിലും വിളിക്കാം എപ്പോൾ വേണമെങ്കിലും കാണാം ലൈവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാനും സാധിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ടെക്നോളജി വളർന്നു അതുകൊണ്ട് നേരത്തത്തേക്കാളും വലുതാണ് അപ്പം അതിന് അറിയാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഇപ്പോൾ എന്ത് കാര്യത്തെ പറ്റി അറിയണമെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ ഫോൺ സിസ്റ്റത്തിൽ സ്മാർട്ട് ഫോൺ സംവിധാനത്തിൽ ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ പടി പഠിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഒരു മൊബൈൾ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അറിവിൻ്റെ നിറകുടമായി മാറുവാൻ പറ്റുന്നു അറിയാത്ത കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങൽ ചരിത്രങ്ങൽ എല്ലാം നമുക്ക് സ്മാർട്ട് ഫോണുകളുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിലൂടെ അറിയാൻ പറ്റുന്നു ടു ജി ഫൈവ് ജി സിസ്റ്റം ഫൈവ് ജി ഉണ്ടെങ്കിൽ ഒത്തിരി സംഭവങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഒക്കെ കഴിയും സ്മാർട്ട് ഫോണുകളിൽ മറ്റ് സാദാ ഫോണുകളിൽ ഇതൊന്നും പറ്റില്ല അതിൻ്റെ ഫോൺ വിളിക്കുക മാത്രമേ സംസാരിക്കുക വയ്ക്കാനും മാത്രമേ ഉള്ളൂ നെറ്റ് ഒക്കെ കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ആ പരുവത്തിലായിരുന്നു ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പം ആ സംവിധാനം ഒക്കെ മാറി വളരെ ഡെവലപ്പ് ആയി മേഖലയിൽ വളരെ വികാസം പ്രാപിച്ചതോടുകൂടി സ്മാർട്ട് ഫോണുകൾ വളരെ ഹെൽപ്പ് ആണ് വളരെ ഹെൽപ്പ് എല്ലാം നമുക്ക് ബിൽ അടയ്ക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ ഫോൺപേ സംവിധാനം കാശൊന്നും നമ്മൾ ഇറക്കേണ്ട സ്മാർട്ട് ഫോൺ ഉള്ളതുകൊണ്ട് ഫോൺപേ വഴി ഇന്ന് പൈസ സാധനങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റുന്നു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു ഒട്ടനവധി ഗുണങ്ങളാണ് ഒട്ടനവധി കാര്യങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച്ചയോളം ചെയ്ത് തീരാത്ത കാര്യങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യാവുന്ന കാര്യങ്ങൾ ഫോണിലൂടെ നിഷ്പ്രയാസം പെട്ടെന്ന് ഈ സ്മാർട്ട് ഫോൺ ഒക്കെ വന്ന വഴി നമുക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയുന്നു അങ്ങനെ ഈ സ്മാർട്ട് ഫോണും ഈ പറഞ്ഞതുപോലെ സാദാ പഴയ കാലത്തെ ഫോണും തമ്മിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് അത് വലിയ ഒരു പുരോഗമനമായ ഒരു കാര്യമാണ് അതു വഴി ഒത്തിരി നേട്ടങ്ങളാണ് നമുക്ക് വരുന്നത് അത് വഴി ഒത്തിരി ഇത്തിരി പണം മറ്റ് ഇതിനേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും നമുക്ക് അതൊരു നഷ്ടമാവുന്നില്ല പ്രയാസ രീതിയിൽ ഫോൺ ഇത്ര എല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നവൻ്റെ പ്രതിമാസം ഒരു നാനൂറ് രൂപയ്ക്കടുത്ത് നമുക്ക് എന്നെ സംബന്ധിച്ച് ചിലവാകുന്ന നാനൂറ് രൂപയാണെങ്കിൽ ചിലവായാൽ ചിലവഴിക്കുന്നത് വഴി നമുക്ക് നഷ്ടങ്ങളല്ല നേട്ടങ്ങളേ ഉള്ളൂ പല കാര്യങ്ങളും എളുപ്പത്തിൽ സാധിക്കുന്നു പെട്ടെന്ന് അറിയാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്നു ഒരാൾക്ക് ദൂരെയുള്ള ഒരാൾക്ക് പൈസ അയയ്ക്കണമെങ്കിൽ തന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫോൺപേ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം സാധ്യമാക്കാൻ പറ്റുന്നു എല്ലാം ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം വഴിയാണ് നമുക്കത് കഴിയുന്നത് അപ്പം മറ്റേ ഫോണും പഴയ ഫോണും സ്മാർട്ട് ഫോൺ സംബന്ധിച്ച് വ്യത്യാസമുണ്ട് മൊബൈലും പ്രതിമാസം പത്ത് നാനൂറ് രൂപ ചിലവഴിക്കുന്നു അന്ന് അത്രയും വരില്ലായിരുന്നു ഇന്ന് അത്രയും ചിലവഴിക്കുന്നുണ്ട് അതൊരു വലിയ മാറ്റം തന്നെയാണ് പണം ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് അതൊരു നേട്ടമാണ് കോട്ടം അല്ല